അതേ അതെ ഇൻ്റസ് കാർ വാഷാണ് ആ പറഞ്ഞോളൂ ഓ ഓ ഓക്കേ നിങ്ങളുടെ വണ്ടി ഏതായിരുന്നു മോഡലേതായിരുന്നു പോളോ ഹും ഓക്കെ ഈ പോളോ ആകുമ്പോൾ അതെങ്ങനാണ് ആ പോളോ ആകുമ്പം നമുക്ക് അത്യാവശ്യം ടച്ചപ്പക്കെ ചെയ്ത് തരും അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും ഇപ്പം നമുക്ക് ഈ സെറ ആ നമ്മൾ ഫുൾ സെർവീസാണ് ചെയ്യുന്നത് ആ ഇത് ലൊക്കേഷൻ ഇവിടെ കുട്ടിക്കാനം നമ്മുടെ ഓപ്പൺ കിച്ചൺൻ്റെയൊക്കെ ഒരോപ്പസിറ്റായിട്ട് വരും ഓക്കേ ആ നിങ്ങളുടെ സ്ഥലം എവിടെയാണ് ഓക്കേ നമുക്ക് പിക്കപ്പ് പിക്കപ്പ് ചെയ്യേം വേണേൽ ചെയ്യാം ഇപ്പം നമ്മൾ തന്നെ ഓപ്പറേറ്ററാരേലും വന്ന് നിങ്ങളുടെ വണ്ടി എടുത്തോളും അപ്പം നമുക്ക് ഒരു ചെറിയ എക്സ്ട്രാ ഫീസ്സ് ഉണ്ടാവുന്നേയുള്ളു അങ്ങനെ വേണോ

അല്ല സാർന് വേറെ കൂടുതൽ ബുദ്ധിമുട്ടാവണ്ടല്ലോ എന്നോർത്തിട്ടാണ് നമ്മൾ അങ്ങനെ പറഞ്ഞത് ഇപ്പം ആ ആ ഫുൾ കാർ ക്ലീനിങ്ങാണ് അപ്പം കാർ വാഷൊണ്ട് അതിനോടൊപ്പം തന്നെ നമുക്ക് സെറാമിക് കോട്ടിങ്ങക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് ടച്ചപ്പ് ചെയ്തെടുക്കും അപ്പം നമുക്ക് കൂടുതൽ കാറ് നല്ല ഫിനിഷിൽ ഇരിക്കാനൊക്കെ ആയിട്ട് നമുക്ക് ഒത്തിരി നല്ലതായിരിക്കും അപ്പം കാണാനൊക്കെ അത്യാവശ്യം അത്യാവശ്യം ഒരു വലിയ ഒത്തിരി നാൾ ഈ ചെളി പിടിച്ച സംഭവങ്ങളൊക്കെ ആണേലും പോകാത്ത സംഭവങ്ങളൊക്കെ നമുക്ക് തന്നെ പെട്ടെന്ന് റിമൂവ് ചെയ്തക്കെ തരാം പിന്നെ അങ്ങനെ ഈ നമ്മുടെ ഈ ടച്ച അപ്പിന് ശേഷം ചെയ്യുമ്പോഴ്ത്തേക്കും അങ്ങനെ ഒത്തിരി ഈ ചെളികളും കാര്യങ്ങൾ ഒന്നും പറ്റിപ്പിടിച്ചിരിക്കത്തില്ല അതാണ് നമ്മുടെ ഒരു ടെക്നോളജീടെ ഒരു പ്രത്യേകതയാണ് ഇപ്പോൾ കാറ് ഫുള്ളൊരു ക്ലീൻ ഫ്രഷായിട്ടിരിക്കും

ഓ ഹോ ഈ ബെൻറ്റും കാര്യങ്ങൊളൊക്കെ ആണെങ്കിൽ നമുക്ക് അത് ശരിയാക്കാവുന്നതേയുള്ളു അപ്പം അതിനായി ഇല്ലേ പിന്നിതെല്ലാം ചെറിയ

ആ പേയ്ൻറ്റ് വർക്കും കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ ചെയ്യാം പേയ്ൻറ്റ് വർക്ക് ചെയ്യേണ്ട കാര്യമില്ല ചെറിയ സ്ക്രാച്ചിനൊക്കെ നമുക്ക് തന്നെ മാറ്റിയെടുക്കാവുന്നതേയുള്ളു ആ ഇനി ചെറുതായിട്ട് തട്ടിം മുട്ടിയൊക്കെ ഒരസി പോയതായിരിക്കുമല്ലേ ആ ഓക്കേ ഓക്കേ അപ്പം നമുക്ക് അത് ചെയ്യാവുന്നതേയുള്ളു കുഴപ്പമില്ല സാറെപ്പഴാന്നു വെച്ചാൽ പറഞ്ഞാൽ മതി അപ്പം അങ്ങനാണേൽ ആ സമയത്ത് നമുക്ക് എല്ലാം റെഡിയാക്കി സെറ്റാക്കി വെയ്ക്കാം പിന്നെ ഇത് മൊത്തത്തിരൂ എല്ലാം ചെയ്ത് വരുമ്പോഴ്ത്തേക്കും ഒരു നാൽപ്പത് രൂപ അല്ല നാൽപ്പത് മിൻറ്റ് അടുത്ത് സമയം വരും പിന്നെ മൊത്തത്തിൽ എല്ലാം സ്ക്രാച്ചും കാര്യങ്ങലിളൊക്കെ ക്ലിയറാക്കി ഫുള്ള് സർവ്വീസക്കെ ചെയ്ത് ബെൻ്റക്കെ മാറ്റി വരുമ്പോഴ്ത്തേക്കും ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അടുത്ത് ബില്ലുവാകും ഷോപ്പിൻ്റെ ടൈമിങ്ങെന്ന് പറയുമ്പോഴ്ത്തേക്കും ഒരു നമ്മൾ രാവിലെ പത്തരയ്ക്ക് തുടങ്ങും അപ്പം പിന്നെ രാത്രി ഒരു ഏഴ് മണി വരെ ഉണ്ടാകും ആ ഏഴ് മണി വരെയാണ് ഓ ഓക്കേ ഓക്കെ

സാറ് വർക്കിനെവിടെയാണ് പോകുന്നത് ചങ്ങനാശ്ശേരി അവിടെയാല്ലേ ഓ അങ്ങനാണേൽ സാറ് പറയുകയാണെങ്കിൽ നമുക്ക് ശനി സാർന് അവധിയുണ്ടോ ആ അങ്ങനെ ആണെങ്കിൽ സാറ് ഓ ഞായറാഴ്ച്ച നമ്മളും കുറവാണ് ലീവാണപ്പം ഒന്നെങ്കിൽ സാറ് വിളിച്ചു പറയാണെങ്കിൽ നമുക്ക് വേണേൽ ഏഴ് മണി എന്നുള്ളത് നമുക്ക് കുറച്ചൂടെ വീണ്ടും സാർന് വേണ്ടി സ്പെഷ്യലായിട്ട് നമുക്ക് ചെയ്ത് തരാം അതല്ലെങ്കിൽ സാറ് നമുക്ക് പ്രത്യേകം അങ്ങനെ ചെയ്യാം കുഴപ്പമില്ല ചെറിയൊരു ചാർജ്ജ് അഡീഷൻൽ വരുമെന്നെയുള്ളു എല്ലാവോക്കേ നമുക്ക് എടോസം സമയം ഇതുപോലൊക്കെത്തന്നാണ് നേരത്തേ പറഞ്ഞല്ലോ ആ ഓക്കെ

ഏയ് വേറൊന്നുമില്ല ഇതൊക്കെ തന്നെയാണ് ഓക്കേന്നാ ഓക്കെ എന്നാൽ താങ്ക് യൂ ഹും ഹും